എനിക്ക് ഈയിടെ ഞാൻ വാങ്ങിയിരുന്ന ഒരു ഉപകരണത്തെ കുറിച്ച് മോശമായ അഭിപ്രായമുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു മൊബൈൽ ഫോൺ വാങ്ങിയിരുന്നത് ഈ മൊബൈൽ ഫോൺ ഏകദേശം പതിനഞ്ചായിരം രൂപ കൊടുത്തായിരുന്നു ഞാൻ വാങ്ങിയിരുന്നത് പക്ഷെ വാങ്ങിയതിന് മൂന്ന് ദിവസം ശേഷം തന്നെ മൊബൈൽ ഫോൺ നല്ലോണം ചൂടാവാൻ തുടങ്ങി അത് മാത്രമല്ല ചൂടാവന്നതിന് ഒപ്പം തന്നെ ഡിസ്പ്ലേയിൽ പച്ച നിറമുള്ള വരകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഇതിനാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇങ്ങനെ ഇപ്പോൾ തന്നെ വാങ്ങിയ പുതിയൊരു മൊബൈൽ ഫോണിൽ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് വളരെ മോശമാണ് ഇതിൽ ഞാൻ വളരെ അധികം ഖേദിക്കുന്നു ഇങ്ങനത്തെ മൊബൈൽ ഫോണുകൾ ഉപഭോക്താക്കൾക്ക് വിൽക്കുന്നത് വളരെ മോശമാണ് ഇങ്ങനത്തെ ഒരു നടപടി അല്ല മൊബൈൽ ഫോൺ കമ്പനിയുടെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിച്ചിരുന്നത് എനിക്ക് വളരെ മോശമായ അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇതേ പോലത്തെ അനുഭവം ഉള്ളതു കൊണ്ടുതന്നെ ഞാൻ ഉപഭോക്തൃ കോടതിയിൽ പരാതി ഏല്പിക്കാൻ തയ്യാറാവുകയാണ് മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിലുള്ള വരകളും അമിതമായി ചൂടാകുന്നതും കൂടാതെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിലും പ്രശ്നമുണ്ട് ആദ്യത്തെ ദിവസം ഉപയോഗിച്ചപ്പോൾ നല്ല രീതിക്ക് പ്രവർത്തിച്ച് കൊണ്ടിരുന്ന ക്യാമറ ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ എടുക്കുന്ന വഴി കറുത്ത രീതിയിൽ കറുത്ത നിറത്തിലാണ് മൊത്തം കാണുന്നത് എന്താണ് പ്രശ്നമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും വളരെ മോശം അനുഭവമാണ് എനിക്ക് ഈ മൊബൈൽ ഫോണിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ ഫോൺ എനിക്ക് മാറ്റി തരുകയോ അല്ലെങ്കിൽ സൗജന്യമായി നന്നാക്കി തരുകയോ കമ്പനി വേണം അത് കമ്പനി ഉപഭോക്താവിനോട് ചെയ്യേണ്ട ഒരു കടമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനത്തെ മൊബൈൽ ഫോണുകളെ പറ്റി ഞാൻ വളരെ മോശമായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സംസാരിക്കുന്നതു കൊണ്ട് ഇനിയും ആൾക്കാർ ഇ ഇതേ കമ്പനിയുടെ ഫോണുകൾ അധികം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം വാങ്ങുമ്പോഴും മൊബൈൽ ഫോണിന് എന്തെലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം തന്നെ കമ്പനിയെ അത് നേരായ രീതിയിൽ അറിയിക്കണം കമ്പനി അതിന് വേണ്ട നടപടി ക്രമം സ്വീകരിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു